ക്ഷേമ സാധനങ്ങൾ വാങ്ങിക്കാൻ ഭയങ്കര വിലയാണ് സാധനങ്ങളെന്നു ഞങ്ങൾക്ക് പാവങ്ങൾക്കു ജീവിക്കാൻ നിവൃത്തിയില്ല ഗ്യാസാനും കറണ്ട് ബില്ലായിരുന്നാലും സാധനങ്ങളായിരുന്നു അതു ഭയങ്കര പാട് പിന്നെ തൊഴിൽ ഇപ്പോഴത്തെ കുട്ടികൾ എത്ര പഠിച്ചിട്ടും തൊഴിലിൽ രാഷ്ട്രീയക്കാരുടെ മക്കൾക്ക് അവർക്ക് വേണ്ട പെട്ടവർക്കുമല്ലാതെ സാധാരണക്കാർക്കു തൊഴിൽ കിട്ടിയില്ല പിള്ളേർ പഠിക്കുന്നത് വെറുതെയാണ് അതു തൊഴിലിനു വേണ്ടി അവർ പുറത്തു രാജ്യങ്ങളിൽ പോകുന്നു പോകാൻ നിവൃത്തിയില്ലാത്തവർ ഇവിടെത്തന്നെ കിടന്നു ചെറിയ ജോലികൾ ചെയ്ത് അവരെ ജീവിതം ഇതാണ് വിദ്യാഭ്യാസമെന്നു പറഞ്ഞ വിദ്യാഭ്യാസം വളരെ മോശമാണിപ്പോൾ സർക്കാർ സ്കൂളുകളിൽ പൈസ ഉള്ളവർക്ക് പുറ വലിയ സ്കൂളിൽ പഠിച്ചവർ നല്ല നല്ല നിലയിലാകുന്നുണ്ട് പക്ഷെ സാധാരണ ഒരു കൂലിവേലക്കാരന്റെ മക്കൾക്കാണെങ്കിൽ അത് അവരെ വിദ്യാഭ്യാസമോ അവർക്കു വലിയ വലിയ സ്കൂളിൽ വിടാൻ സമയമോ പൈസയുമില്ല അതുകൊണ്ട് അവരെ വിദ്യഭ്യാസവും അതും വളരെ മോശമാണ് ഇപ്പോൾ എല്ലാവരെയും ഏ പ്ലസ് കൊടുത്തു ജയിപ്പിക്കണ ഒരു കാലമായി വന്നിരിക്കുകയാണ് പിന്നെ ആരോഗ്യമെന്നു പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ മൊത്തവും പച്ചക്കറി തന്നേലും ഭയങ്കരമായ വിഷാംശങ്ങൾ അടിച്ചാണ് വരണേ ഒരാഴ്ച്ച രണ്ടാഴ്ച്ചയേ ഇരുന്നാലും നമ്മൾ പച്ചക്കറികൾ കേടുവരണില്ല അതേസമയം വീട്ടിൽ ഉണ്ടാക്കണേണെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ അതഴികിപ്പോകുന്നുണ്ട് പക്ഷേ കടയിൽ നിന്നു വാങ്ങിക്കണ പത്തു ദിവസമായാലും ഇരുപത് ദിവസമായാലും അത് അതേപടി ഇരിക്കുന്നുണ്ട് അപ്പം അതിലത്രക്കും വിഷാംശം അടിച്ചിട്ടാണ് അതു നമ്മളെ ആരോഗ്യത്തിനു കുഴപ്പമാണ് പിന്നെ വിദ്യാഭ്യാസ സഹായമെന്നൊക്കെ പറഞ്ഞതു കൊണ്ട് പിള്ളേർ ഓരോ ലോണിനും അതിനുമിതിനുമൊക്കെ ഇറങ്ങിക്കയറി അവരെ ക്ഷമകെടുകയാണ് പക്ഷെ എന്നിട്ട് സഹായം കിട്ടിയതിന്റെ ശരിക്കും ലോണിന്റെ പലിശയായിട്ടൊക്കെ വരുന്നെന്നാണ് ഒരോരുത്തരും പറയുന്നത് പിന്നെ തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾക്ക് തൊഴിലിവിടെ ഒന്നുമില്ല എല്ലാവരും പുറത്ത് പഠിക്കാനെന്നും പറഞ്ഞതു കൊണ്ട് പകുതി ജോലി ചെയ്യുന്നു പിന്നെ പഠിക്കുന്നു എന്നും പറഞ്ഞതു കൊണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം ചെയ്യുന്ന എല്ലാ കുട്ടികളും പുറത്തു പോവേണ് ചെയ്യുന്നത് പിന്നെ ഇതു വിദ്യാഭ്യാസം മാറണമെന്നു ഞങ്ങൾക്കിതുണ്ട് ഗവൺമെൻറ്റ് സ്കൂളിൽ നല്ല നിലവാരം വരണമെന്നുണ്ട് പക്ഷെ ഈ സാധനങ്ങളെ വിലകളെല്ലാം കുറച്ചു കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഗ്യാസിനെ ആണെന്നെങ്കിലും കറണ്ട് ബില്ലായിരുന്നാലും ഇപ്പം സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വയ്യ രണ്ടായിരം മൂവായിരം രൂപയുടെ സാധനം നമ്മളൊരു മാസത്തു വാങ്ങിച്ചു കൊണ്ടിരുന്ന ഇപ്പോൾ ആറായിരം ഏഴായിരം ആയാലൊന്നുമില്ല ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്